ഹലോ ആ ഓക്കെ പ ആ അതെ പറഞ്ഞോളു ആ ഓക്കെ ആ ഓക്കെ ആ ആനുവൽ ഇൻകം എങ്ങനാണ് വരുന്നത് ആ ഓക്കെ മാക്സിമം നിങ്ങക്കിപ്പോൾ എത്ര എമൗണ്ട് വേണ്ടി വരും ആ ഓക്കെ ഇപ്പം നിങ്ങൾക്കെന്തെങ്കിലും എന്തെങ്കിലും വെയ്ക്കാനുണ്ടോ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടോ അ ആ ഗോൾഡോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഒരൂ അല്ലാ മൊത്തത്തിൽ വെച്ചോളു നിങ്ങൾക്കിപ്പം ആ നിങ്ങൾക്കിപ്പൊരു മൂന്നേക്കറും ഒരു പത്ത് പവൻ്റെ സ്വർണ്ണവും വെയ്ക്കേണ്ടി വരും അപ്പമൊരു നാപ്പത് കിട്ടും ആ ആ അതെയതെ പിന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെ ആനുവൽ ഇൻകത്തിൻ്റെ ഇത് കാണിക്കേണ്ടി വരും ഇപ്പം ഇൻ്ററെസ്റ്റ് വരുന്നത് ഒരു പതിനൊന്നാണ് വരുന്നത് ഇപ്പോൾ ഗോ ഇപ്പോൾ ഇതായത് കൊണ്ട് കാർ ലോൺ ആയത് കൊണ്ട് ആ ഓക്കെ പിന്നേയിപ്പം നിങ്ങൾക്ക് ആ മാസം വേണേൽ അടയ്ക്കാം മാസം വേണേൽ അടയ്ക്കാം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ അടയ്ക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ അങ്ങനടയ്ക്കാം ആ പ്ലാനുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്നാൽ വെച്ചാലിവിടെ ബാങ്കിൽ ഈ അക്കൗണ്ട് ഉണ്ടോ ആ അപ്പം ആ ഇവിടെയെന്തായാലും അക്കൗണ്ട് എടുക്കേണ്ടി വരും ആ പുതിയതെടുക്കണം അപ്പം അതിന് നാല് ഫോട്ടോയും പാൻ കാർഡുണ്ടെങ്കിൽ പാൻ കാർഡ് ആധാർ കാർഡ് ഒക്കെയായിട്ട് വരേണ്ടി വരും അപ്പം അതൊരു ടൂ വീക്കിനുള്ളിൽ റെഡി ആക്കം ആ അതെ അതെ

ഹാ ഇല്ല നിങ്ങളാരുമെങ്കിൽ മാക്സിമം എന്താ പറയുക ഒരു അമ്പതിന് മേലേ കിട്ടും എന്തായാലും ഇതിപ്പം ഓരോരുത്തരുടെ എന്താ പറയാം ഇതനുസരിച്ചാണ് കിട്ടുക

എന്തായാലും നിങ്ങൾ മാനേജറെയൊന്നു കാണെണ്ടി വരും പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റസോക്കെയാണ് സബ്മിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് അപ്പ്രൂവ്ഡ് ആയാൽ മാത്രമേ നമുക്കെന്താന്ന്വെച്ചാൽ ലോണ് ഇതാക്കാൻ പറ്റുവുള്ളു

നിങ്ങക്കിപ്പം ഇന്നിപ്പം സമയമില്ലേ നാളെ വന്നാലും മതി നാളെയൊരു മോണിങ്ങ് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ആ വിളി വിളി നിങ്ങളെന്തായാലും വിളിച്ചിട്ട് വന്നാൽ മതി ആ മാനേജർനെ മാനേജര് ഉണ്ടാകുവോന്നറിയില്ല ഒന്നു വൈകുന്നേരം എന്തോ പരുപാടിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നോക്കീട്ട് ഒന്ന് വിളിച്ചിട്ട് എന്തായാലും വരൂ മാനേജറെ കണ്ടാൽ മതി